ഗ്രാമത്തിലൊരു വീട് പണിയുക എന്നു പറയുമ്പോൾ തന്നെ ഇപ്പോഴത്തെ മാറി വരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥയെക്കുറിച്ച് ഗണ്യമായ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് പ്രത്യേകിച്ചു ആലപ്പുഴ പോലെയുള്ള ഒരു ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് മൂന്നടിയോളം താഴ്ച്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുട്ടനാടിനോട് വളരെ അടുത്ത് വരുന്നൊരു പ്രദേശമാണ് എൻ്റേത് അപ്പോൾത്തന്നേയും അടിക്കടി വരുന്ന വെള്ളപ്പൊക്കവും കാലാവസ്ഥ വ്യതിയാനങ്ങളും ഒരു ഭവനനിർമ്മാണത്തിന് വളരെ ദുഷ്ക്കരമായ കാര്യങ്ങൾ തന്നെയാണ് അത് പണിയുമ്പോൾ തന്നെ പിന്നെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ കിട്ടുന്ന ഒരു രീതിയിൽത്തന്നെ വേണം ഇതിൽ സോറി രക്ഷ കിട്ടുന്ന ഒരു രീതിയിൽത്തന്നെ വേണം ഒരു ഒരു ഭവനം പണിയുമ്പോഴത്തേക്ക് അതിന് പ്ലാനിങ്ങ് മുതൽത്തന്നെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ചിരിക്കുന്നത് അടുക്കള കക്കൂസ് വാസ്തു ഇത് ഇക്കാരണളെക്കുറിച്ച് ഞാൻ കൂടുതലായി ആലോചിക്കാറില്ല എനിക്ക് ആ അത്തരം കാര്യങ്ങളെക്കുറിച്ച് താൽപ്പര്യവും ഇല്ല പിന്നെ ആരാധനയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു കൃസ്ത്യൻ സമൂഹമെന്ന നിലയിൽ എനിക്ക് ആരാധനയ്ക്ക് ഉള്ള ആരാധനാലയം എൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു നടന്നെത്താവുന്ന ദൂരപരിധിയിലുണ്ടാവുക എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമാണ് ഞാൻ ഒരു ഭവനം പണിയുകയാണെങ്കിൽ ഇത്തരം ഒരു സാഹചര്യമായിരിക്കും വാസ്തു നോക്കുന്നതിന് നോക്കുക എന്നതിനേക്കാൾ കൂടുതലായി പരിഗണിക്കുക സമീപ വശങ്ങളിൽ ഈ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സമീപവശങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഗ്രാമത്തിലെ ഒരു ഭവന നിർമ്മാണ പദ്ധതി ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അത് വെള്ളപ്പൊക്കത്തെ കൂടി പരിഗണിച്ചാണ് ഇപ്പോഴത്തെ ഒരു ഭവനനിർമ്മാണം എന്നാണെനിക്ക് പറയാനുള്ളത് അൽപ്പം കൂടി ഉയർത്തി കാലുകൾ കാലുകൾ ബലവത്താക്കി ഉള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇപ്പോൾ പലപ്പോഴും പലരും അവലംബിച്ച് പോരുന്നത്